നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ചൊവ്വ വ്യാഴം ചന്ദ്രൻ സൂര്യൻ എന്നിങ്ങനെ ഒരുപാട് ഗ്രഹങ്ങൾ പിന്നെ ആകാശത്ത് രാത്രി കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ അവയിൽ ഒന്നാണ് തിരുവാതിര എന്നു പറയുന്ന നക്ഷത്രം അത് ചുവന്ന നിറത്തിലാണ് കാണാൻ കഴിയുക അത് വേട്ടക്കാരൻ്റെ തോളിൽ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് പിന്നെ വ്യത്യസ്ത തലത്തിലുള്ള ആകാശ ഗോളങ്ങളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവം നമുക്ക് ശാസ്ത്രത്തിലൂടെ പഠിക്കാൻ സാധിക്കും ശാസ്ത്രത്തിൽ ഇവരുടെ സ്വഭാവവും പ്രത്യേകതകളും എല്ലാം തന്നെ നമുക്ക് വിശദമായി തന്നെ പഠിക്കാം എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടേതായ ഓരോ പ്രത്യേകതകളുണ്ട് സൂര്യനാണ് നമുക്ക് പകൽ മുഴുവനും വെളിച്ചം നൽകുന്നത് അതു പോലെ തന്നെ രാത്രിയിൽ ചന്ദ്രനും നമ്മുടെ ആകാശത്ത് കോടിക്കണക്കിന് ഗ്യാലക്സികളുണ്ട് പിന്നെ ഇവയെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുവാനായി ശാസ്ത്രത്തിൻ്റെ സഹായം തേടാം